ഈ നാലാം ക്ലാസ് എൻ്റെ അഭിപ്രായത്തിൽ നാലാം ക്ലാസ് തൊട്ടാണ് ഞാൻ ചിത്രരചന പഠിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അതിൻ്റേതായ നല്ലൊരു മാറ്റം എനിക്കുണ്ട് ഒത്തിരി കലകൾ എനിക്ക് ഒത്തിരി പടങ്ങളൊക്കെ വര ചിത്രങ്ങൾ വരയ്ക്കാൻ എനിക്ക് സാധിച്ചു ഞാൻ നാല മു ഞാൻ നാലാം ക്ലാസ് മുതലാണ് ചിത്രരചന പഠിച്ചത് ഇത് ഇത് ഈ കുഞ്ഞിലെ തൊട്ട് വരയ്ക്കു വരച്ചുപഠിക്കുമ്പോൾ അതിൻറ്റേതായ ഒരു മാറ്റം നമുക്ക് വരും